പഴയകാല ആരോഗ്യ സംരക്ഷണവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഇന്ത്യയുടെ ആരോഗ്യ സംവിധാനം വളരെയധികം മെച്ചപ്പെട്ടതാണ് അത് അതിന് അതുകൊണ്ട് തന്നെ നമ്മൾ മന്ത്രിമാരോടും അതുപോലെ അതിനുവേണ്ടി പ്രവർത്തിച്ച മറ്റു ഉദ്യോഗസ്ഥരോടും നന്ദി പറയേണ്ടതാണ് എന്നാൽ ചില ആശുപത്രികളിൽ ഇപ്പോൾ എന്നുവെച്ചാൽ ഗ്രാമത്തിലെ ഇപ്പോഴുള്ള ആശുപത്രികളിൽ വളരെയധികം അപ്ഡേഷൻ വന്നിട്ടില്ല കാരണം ഇപ്പോൾ ഒരു എമർജൻസി ആയി ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയാൽ പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ ചെയ്യാനുള്ള ഉപഹാര ഉപകരണങ്ങളില്ല അതിന് നമ്മൾ ടൗണിൽ തന്നെ സിറ്റിയിൽ തന്നെ കൊണ്ടുപോകേണ്ടി വരും അതുപോലെ അവിടെ ചെന്നാലും ചില ഉപകരണങ്ങളില്ല പിന്നെ അവിടെ സ്റ്റേ ചെയ്യാനുള്ള സംവിധാനങ്ങൾ എല്ലാ ആശുപത്രികളിലും ഇല്ല ഉണ്ടെങ്കിലും വളരെ കുറവ് ചുരുക്കം മാത്രം അതുപോലെ മിഷനറീസിൻ്റെ കാര്യം നോക്കിയാൽ തന്നെ ചില ആശുപത്രികളെ എന്നുവെച്ചാൽ പ്രൈവറ്റ് ആശുപത്രികളിലായി നല്ല നല്ലതുപോലെ അത് ഉണ്ടെങ്കിലും അവിടെ കൂടുതലായി പൈസ ചിലവാക്കുന്നു ഗവൺമെൻറ് ആശുപത്രികളിൽ അങ്ങനെ വലുതായിട്ട് ഒന്നുമില്ല അതുപോലെ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഡോക്ടർമാരുടെ കേസ് ആണ് ഡോക്ടർമാർ എല്ലാ ആശുപത്രികളിലും വളരെ സജീവമായി കാണാറില്ല കാരണം അവിടെ കൊടുക്കാൻ ഡോക്ടർമാരില്ല അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ അവിടെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെക്കുറിച്ചാണ് ഉപകരണങ്ങൾ എന്താണ് വളരെയധികം പഴകിയ പഴകിയ ഉപകരണങ്ങളാണ് അവർ സാധാരണ ഉപയോഗിക്കാറ് കാരണം അവിടെ പുതിയ ഉപകരണങ്ങൾ വർഷാവർഷം ഉപകരണങ്ങൾ വാങ്ങാനും മറ്റ് പല സാധനങ്ങളും കൊണ്ടെത്തിക്കുന്നില്ല അതിനുവേണ്ടി ഇനി വല്ലതും ചെയ്യണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളത് പരിസരം ആണ് ഒരു ആശുപത്രീൻ്റെ പരിസരം എന്ന് വെച്ചാൽ വളരെ ശുദ്ധിയായും വൃത്തിയായും ഇരിക്കേണ്ട ഒരു കാ കാര്യമാണ് അതുപോലെ തന്നെ അവിടുത്തെ ടോയ്ലറ്റുകളും അതുപോലെ തന്നെയാണ് നല്ല പരിസരം ഉണ്ടെങ്കിലേ നല്ല ആരോഗ്യമുണ്ടാവൂ അപ്പം അതിനുവേണ്ടിയുള്ള കാര്യങ്ങളും ഓരോ ആശുപത്രികളിലും ചെയ്യേണ്ടതാണ് എന്ന് പറയുവാണ് ഓക്കെ ശരി ബൈ